ഹലോ ഞമ്മൾ വന്ന് ആ അന്ന് മൊബൈൽ വാങ്ങീരുന്നല്ലോ ഞാനന്ന് അന്ന് ഞാൻ വാങ്ങിയ മൊബൈലിന് മൊബൈലിലൊരു ഒന്ന് ചാർജ് നിൽക്കുന്നില്ല പിന്നൊന്ന് കറക്ടായിട്ട് സൗണ്ടിൻറ്റിടക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സൗണ്ടിനും പ്രശ്നമുണ്ട് പിന്നെ പിന്നെ പിന്നൊന്ന് റേഞ്ചും അങ്ങനെ കറക്ടായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ നോക്കീട്ട് അതിന് ഞാൻ അതിനെന്താ എപ്പോൾ വന്നാൽ കാണാൻ പറ്റും അവിടെ വന്നാൽ എനിക്കെന്താണേലും ഒരുപാട് കോള് വരാനുള്ളതാണ് കോള് വന്നോ ഇല്ല അവിടെ ഇങ്ങനെ ഫോണ് വെച്ചോന്നെനിക്കറിയില്ല എങ്കിപ്പിന്നെ എങ്കിൽ ഫോൺ ഇപ്പം വേറെ ഫോൺ തരേണ്ടിവരും വർക്ക് ആളുണ്ടോ പണിക്കാർ മെക്കാനിക്കിണ്ടോ അവിടെ ആ ഉണ്ടല്ലേ പ്രശ്നമെന്നുപറഞ്ഞാൽ ഒന്നുമില്ലാ ചാർജ് നിൽക്കുന്നില്ല പിന്നൊന്നിതാണ് അതിൻ്റെ റേഞ്ചു കൂടുതൽ ഫോണിലേതേലും കോൾ വന്നുകഴിഞ്ഞാലും അത് കട്ടാവുന്നുണ്ട് ഏഹ് അതുപോലൊരു അന്ന് ഞമ്മൾ വാങ്ങിയ നിങ്ങൾ തന്നെ അന്ന് തന്ന ഫോണാണത് ഞാൻ അതാണിപ്പോൾ നിങ്ങൾ തന്നെ തന്ന ഫോണാന്ന് അതിൻ്റെ ഗാരണ്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഗാരണ്ടിയൊക്കെ ഉണ്ടതിൽ അത് നിങ്ങൾ ഒന്നുനോക്കീട്ട് ഒന്ന് ചാർജ് ചാർജ് വലിയ വ്യത്യാസോന്നുമായിട്ടില്ല ചാർജ് ബാറ്ററി വീക്ക് വീക്കം വന്നിട്ടൊന്നുമില്ല ബാറ്ററി കറക്ടുണ്ട് പക്ഷേ ചാർജ് നിൽക്കുന്നില്ല അതെന്താന്നുള്ള ഒന്ന് ഏഹ് ചാർ

ആ ആ ഇനി സർവീസ് സെൻറ്ററിൽ തന്നെ അവിടെ ഇതൊന്നു കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ ഇനിയൊന്നു കാണിച്ചാൽ മതി നിങ്ങൾ ചെയ്തുതരും നിങ്ങൾ കൊണ്ടുപോകും അല്ലെ അല്ല കമ്പനി കമ്പനി സർവീസ് ഏഹ് അതെ ആ ആ മാത് പറഞ്ഞുവന്നതെന്നാൽ എനിക്കൊരുപാട് കോള് വരാനുള്ളതാണ് അപ്പോൾ ഞാനവിടെ കൊണ്ടുവന്നുവെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ലന്നു പറഞ്ഞിട്ടാണ് പറയുന്നത് പെട്ടെന്നു തന്നെ റെഡിയാവുന്ന പോലെ ചെയ്യുക ശരി ശരി ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ